ഈ മൊത്തവ്യാപാര വിപണിയിൽ കൂടുതലും വരുന്നത് ഉള്ളി ഉരുളക്കിഴങ്ങ് പച്ചക്കറി ഈ പിന്നെ അതുപോലെതന്നെ നേന്ത്രക്ക ഇങ്ങനെ ഉള്ള സാധനങ്ങളക്കെയാണ് ധാരാളം മൊത്തവ്യാപാരമായിട്ട് വിപണിയില് വന്നെത്തുന്നത് അതുപോലെ തന്നെ പലചരക്കുകളിൽ തന്നെ ഉള്ളിക്ക് വില കൂടുമ്പോൾ തക്കാളി പച്ചക്കറിയില് തക്കാളി വേഗം മൊത്തവ്യാപാരത്തിലും ചില്ലറവ്യാപാരത്തിലും വില പിടിച്ച് നിർത്താനുള്ള വളരെ പ്രശ്നങ്ങൾ അവർക്കുതന്നെ ഉണ്ടാകാറുണ്ട് പച്ചക്കറിയുടെ വിലയിൽ ധാരാളം മാറ്റങ്ങള് വന്നിട്ടുണ്ട് കാരണം അതിൻ്റെ കാലാവസ്ഥയുടെ വ്യതിയാനവും അതുപോലെ തന്നെ പിന്നെ അതിനുള്ള വളങ്ങളുടെ വിലകൂടുതലും എല്ലാം പച്ചക്കറി വിലയില് വളരെ അധികം മാറ്റങ്ങള് വരുത്തിയിട്ടുണ്ട് ആൺലൈൻ വഴി നമുക്ക് ഇപ്പം ധാരളം പച്ചക്കറികള് അതൊക്കെ വീടുകളിലും വരുത്തുന്നുണ്ട് അവറ്റകളിൽ നമുക്ക് ഇഷ്ടപെട്ടിട്ടുള്ള സാധനങ്ങൾ വരുത്താം പക്ഷേ അതിനകത്ത് ഒരു ഇതുണ്ട് പക്ഷേ ഞങ്ങള് കടയിൽ ചെന്ന് നേരിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ ഇഷ്ടമുള്ളത് അവിടെ നിന്ന് തന്നെ സെലെക്ട് ചെയ്ത് നമുക്ക് നമുക്കുള്ളതായിട്ട് രീതിയിൽ സെലെക്ട് ചെയ്ത് എടുക്കാൻ കഴിയും പക്ഷെ അവര് അയക്കുന്നതായിരിക്കും ഓൺലൈനിൽ നമുക്ക് കയ്യിൽ കിട്ടുന്നത് നല്ല സാധനമാണെന്നും പറഞ്ഞ് ഓൺലൈനിൽ കൊടുക്കുകയാണെങ്കിൽ വീട്ടിൽ എത്തുന്നത് ചിലപ്പോൾ അതിന് വ്യത്യാസം വന്നെന്ന് വരും പക്ഷെ നമ്മൾ നേരിട്ട് ചെന്ന് വാങ്ങിക്കുകയാണെങ്കിൽ അതിനുള്ള പിന്നെ ഗുണങ്ങളുണ്ടാകും പക്ഷെ വീട്ടിലാണെങ്കിൽ അന്ന് പറഞ്ഞതുപോലെ പിന്നെ ഒര് ഒര് കണക്കുണ്ട് ചിലപ്പോൾ ഒര് കിലോയ്ക്ക് മാത്രമേ ചിലപ്പോൾ കൊടുക്കാൻ പറ്റു വീട്ടിലും കടയിലും പച്ചക്കറികൾ ആണെങ്കില് അവര് കടയിൽ നമുക്കൊരു നൂറ് രൂപയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് ചെന്ന് അവിടൊരു നൂറ് രൂപയ്ക്ക് ഉള്ള അത് സെലക്ട് ചെയ്ത് കട്ട് ചെയ്ത് വാങ്ങിക്കാൻ കഴിയും പക്ഷെ ഷോം ഓൺലൈനിൽ കൂടെ വരുത്തുകയാണേൽ അതിന് ഒരു ഒര് തൂക്കമുണ്ട് അതിനാ തൂക്കം കണക്കാക്കിയിട്ട് നമ്മൾ ഓർഡർ കൊടുക്കുകയും വരികയും ചെയ്യും അത് ഒരു സാധനം ഇവിടെ വന്നുകഴിഞ്ഞാൽ പിന്നെ ഉദാഹരണത്തിന് തക്കാളി തന്നെ അവിടെ നിന്ന് പിന്നെ ഓൺലൈനിൽ കൂടെ വീട്ടിൽ വന്നുകഴിഞ്ഞാല് അത് കേടായിട്ടുണ്ടെൽ നമ്മളെടുത്ത് കളയാനെ പറ്റുള്ളൂ അതൊന്നും ചെയ്യാൻ പറ്റില്ല അവിടെ ചെന്ന് ഇഷ്ടമുള്ളത് നോക്കിയെടുക്കാം പക്ഷെ വീട്ടില് വളരെ വാർദ്ധക്യം വന്ന ഈ ഒന്നും രണ്ടും പേര് കാരണം അവർക്ക് പുറത്ത് ഇറങ്ങാനും പിന്നെ പീടികയില് പോകാനും ഉള്ള ആരോഗ്യങ്ങൾ ഇല്ലാതെ ഒക്കെ ഇരിക്കുകയും വളരെ ബുദ്ധിമുട്ടുള്ളവർക്ക് ഓൺലൈൻ വളരെ സൗകര്യമാണ് വീട്ടിൽ ഇരുന്നു കഴിഞ്ഞാൽ ഓൺലൈനിൽ കൊടുത്ത ഏത് സാധനവും വീട്ട്പടിക്കലെത്തുന്ന ഒരു സംവിധാനം ഒര് നല്ല വശം തന്നെയാണ്